സാങ്കേതികവിദ്യയുടെയും ഇന്റർനെറ്റിൻ്റെയും വളർച്ചയ്ക്കൊപ്പം വളരെ മികച്ചൊരു മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കില് ഇപ്പോഴൊരു എല്ലാ ഇന്റർനെറ്റ് ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോള് എന്താണേലും ഇപ്പോള് ക്വസ്റ്റൻ പേപ്പർ ആൻസർ ചെയ്യാനാണെങ്കിലും ഒരു അസൈൻമെന്റ് എഴുതാനാണെങ്കിലും ഒരു പിക്ച്ചറെടുക്കാനാണെങ്കിലും എന്ത് എന്തിൻ്റെ ആവശ്യത്തിനാണെങ്കിലും ഇപ്പോള് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വേണം അതില്ലാണ്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഇപ്പോഴൊരു ബില്ല് പേ ചെയ്യാൻ ടി വി കറണ്ട് ആവശ്യം അതുപോലെ എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും ഇന്റർനെറ്റിൻ്റെ ആശ്യമാണ് അതുപോലെ തന്നെ ലെറ്റര് കത്തൊക്കെ എഴുതിയിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോള് അത് അതിനു കുറേ മാറ്റങ്ങള് വന്ന് മെസ്സേജസ് മെസ്സഞ്ചേഴ്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ അങ്ങനെ പലതരം ആപ്പുകള് ആപ്പുകളുണ്ട് ഇപ്പോള് മെസ്സേജസ് അയക്കാനും വീഡിയോ കോള് ചെയ്യാൻ കോളെയ്യാൻ അങ്ങനെ പല പല സംവിധാനങ്ങള് ഇപ്പോള് നിലവില് വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോള് നമുക്ക് ഒരു ലൊക്കേഷൻ എവിടെയേലും പോകണമെങ്കില് തന്നെ ലൊക്കേഷൻ വേണമെങ്കില് തന്നെ അതിനെന്താണോ ഈ ഇൻ്റർനെറ്റ് ആവശ്യമാണ് അതിനു നമുക്ക് ഫോണിലിപ്പോള് ഫോണില് കിട്ടാത്തതായിട്ട് നെറ്റില് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എല്ലാത്തിനും ഇപ്പോള് കുട്ടികളടക്കമെല്ലാവരും അതിനോ അതുകൊണ്ട് അഡിക്റ്റാണ് കാരണം കുഞ്ഞുകുട്ടികളടക്കം ജനിച്ചുകഴിഞ്ഞ കുഞ്ഞുകുട്ടികളടക്കം ഫോണിലിപ്പോള് അഡിക്റ്റാണ്